ആ ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു ഒരു പേനയായിരുന്നു പ്രൊഡക്ട് എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നത് വളരെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു അതിൻ്റെ പാക്കിങ്ങും എല്ലാം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് സന്തോഷമുണ്ട് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു എനിക്ക് അത് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ നൈബർ ഇതുപോലെ ഓർഡർ ചെയ്തപ്പോൾ ഒരു പേന കറക്റ്റ് ആയിരുന്നില്ല മാറി ഓർഡർ മാറിയായിരുന്നു വന്നിരുന്നത് അങ്ങനെ ഒരു പേടിയെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ കിട്ടി വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമായിരുന്നു ഞാൻ ഒരുപാട് അത് ഉപയോഗിക്കാൻ എനിക്ക് പറ്റും ഒരുപാട് നാൾ കാലം എനിക്ക് പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുപോലെ അതിലത്തെ മഷിയായാലും ഞാൻ ഉദ്ദേശിച്ച മഷിയായിരുന്നു എല്ലാം എനിക്ക് ഉപകാരപ്പെട്ട സാധനമായിരുന്നു പിന്നെ അത്കൊണ്ട് എനിക്ക് പല ഉപയോഗങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് അതിന് ഞാൻ ഏറ്റവും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഞാൻ പേന അതിന് കൊടുക്കുന്നത് എൻ്റെ പ്രോഡക്ടിന് അതിൻ്റെ ഡെലിവറി കമ്പനിയായാലും എനിക്ക് എല്ലാം കൃത്യമായി തന്നെ ചെയ്തു തന്നു വളരെ സന്തോഷമാണ് എനിക്ക് ലഭിച്ചതിൽ പിന്നെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കിട്ടിയത്